എന്റെ വീടിനടുത്ത് ഒരു കുളം ഉണ്ട് അത് ശരിക്കും കുളം അല്ല അതൊരു തടാകമാണ് വഞ്ചിക്കുളം എന്നാണതിന്റെ പേര് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഗതാഗതത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വഴിയായിരുന്നു ഈ വഞ്ചിക്കുളം അതിൽ ഈ സാധനങ്ങൾ കയറ്റു കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ വഞ്ചിക്കുളം എന്നു പറയുന്നത് വഞ്ചിക്കുളം ആദ്യത്തെ ഒരു രണ്ടു മൂന്നു വര്ഷം മുമ്പത്തെ അവസ്ഥയിലല്ല ഇപ്പോൾ ആദ്യം എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് ആര്ക്കും പോകാന് പറ്റാത്ത ഒരവസ്ഥയായിരുന്നു തീരെ ആര്ക്കും അങ്ങോട്ടു കടക്കാന് പറ്റില്ല ആളുകൾ അവിടെ വന്നു മദ്യം കഴിക്കുക അതു നശിപ്പിച്ച് ഇടുക അങ്ങനെ നോക്ക് കണ് നമുക്കതു കാണാന് പറ്റാത്ത പോലത്തെ ഒരവസ്ഥയിലായിരുന്നു ഇപ്പോൾ അത് ആളുകള് കൈ മുന് മുന്കൈ എടുത്തു അത് നന്ന് നന്നാക്കി ഇപ്പോൾ അതൊരു ഒരു പാര്ക്കു പോലെ ആളുകള്ക്ക് വൈകുന്നേരം സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റുന്ന പോലത്തെ ഒരു സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട് അവിടിപ്പോൾ ബോട്ടിംഗുണ്ട് വൈകുന്നേര സമയങ്ങളിൽ കുട്ടികളും സ്ത്രീകളും കുടുംബമായിട്ടൊക്കെ വന്നിരിക്കാറുണ്ട് അവിടെ വന് അത്രയും ചരിത്ര പ്രധാനമായൊരു സ്ഥലത്ത് ഇതുപോലെ വളരെ മോശമായിട്ടിടുന്ന എന്നു പറയുന്നത് അതു നമ്മളുടെ ചരി നമ്മുടെ ഒരു ചരിത്രത്തിന്റെ തന്നെ ഒരു മോശമായി മാറാണ്